ആ കേൾക്കാം സംസാരിച്ചു കഴിഞ്ഞോ ചേച്ചി ടീച്ചറെ ടീച്ചറെ ഹലോ കേൾക്കത്തില്ലേ ആ പറഞ്ഞോളൂ ഇൻഡിപെൻഡൻസ് ഡേടെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വിളിച്ചതാണ് ഇൻഡിപെൻഡൻസ് ഡേയ്ക്ക് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് അറിയാൻ വേണ്ടി വിളിച്ചത് ആണ് എന്നാ ഒക്കെ ചെയ്യാൻ പറ്റുന്നത് പിന്നെ സ്റ്റേജ് കാര്യങ്ങൾ കുട്ടികളുടെ പരിപാടികൾ പിന്നെ സമ്മാനം കാര്യങ്ങൾ ഇതൊക്കെയല്ലേ ചെയ്യാനുള്ളത്

ആ

ഡെക്കറേഷനെക്കുറിച്ച് എന്താണ് ടീച്ചറുദ്ദേശിക്കുന്നത്

പിന്നെ എന്നാ ടീച്ചറെ ഫ്ലാഗ് വേണോ ഫ്ലാഗ് വേണ്ടേ നമുക്ക് ഫ്ലാഗും വേണം തൊപ്പി വേണം പിന്നെ രാഷ്ട്രപിതാവ് ചാച്ചാജി നെഹ്റു അങ്ങനുള്ള ആൾക്കാരുടെ ഒക്കെ ഇത് വേണ്ടേ

വരാം പിന്നെ നമുക്ക് പതാക ഉയർത്തൽ വെക്കണ്ടായോ സ്വാതന്ത്ര്യ ദിനം ആയതു കൊണ്ട് പതാക ഉയർത്തൽ വെക്കണ്ടേ സ്വതന്ത്ര ദിനം ആയത് കൊണ്ട് എന്തിനാണ് ഉപയോഗിക്കുന്നത്

അതു കഴിഞ്ഞൊരു മിഠായി വിതരണവും ചെയ്യാം പിള്ളേർക്ക് ചെറിയ പിള്ളേരല്ലേ

നമുക്ക് മാതാപിതാക്കളെ കൂടി ഇൻവൈറ്റ് ചെയ്യാം മാതാപിതാക്കളെ കൂടി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് എന്നാലല്ലേ ഒരു ആളുണ്ടാകുള്ളൂ

കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ട് പോകാം